ഹലോ നമസ്കാരം ഫെഡറൽ ബേങ്കല്ലേ സാറേ എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു അക്കൗണ്ടുമായി ആധാർ ബന്ധിപ്പിച്ചില്ലയെന്നുണ്ടെങ്കിൽ സബ്സിഡി ലഭിക്കില്ല അത് നിർത്തും എന്നു പറഞ്ഞുകൊണ്ട് എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു അതിന് എന്താ ചെയ്യേണ്ടത് ആ താങ്കളുടെ പേര് പറയൂ നിങ്ങളുടെ ആധാർ അതുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഫോൺ നമ്പറും കൊണ്ട് ഓഫീസിൽ വരൂ അത് ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് നേരിട്ടതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇനി അങ്ങനെയുള്ള മെസ്സേജും വരില്ല അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി നിങ്ങളുടനെ ഓഫീസിലേക്ക് ആധാറും ഫോൺ നമ്പറും ഫോണും കൊണ്ടുവരു ഓക്കെ സാറേ അപ്പോൾ ഞാനാധാറും ഫോണും കൊണ്ടുവന്നാൽ മതിയല്ലേ വേറെ എന്തെങ്കിലും ഡോക്യൂമെൻ്റ്സ് കൊണ്ടുവരേണ്ടതുണ്ടോ അങ്ങനെ എന്തെങ്കിലും വേറെ നിബന്ധനകൾ എന്തെങ്കിലുമുണ്ടോ അങ്ങനെയൊന്നുമില്ല നിങ്ങളാധാറും അതുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഫോൺനം ഫോണും രണ്ടും കൊണ്ടുവന്നാൽ മതി ഓക്കെ താങ്ക് യു സാർ